ആരോഗ്യ സംരക്ഷണം ഗതാഗതം വിദ്യാഭ്യാസം ഇതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും നഗരങ്ങളെയും ഒക്കെ മികച്ചതാക്കാൻ സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കഴിയും ആരോഗ്യ സംരക്ഷണത്തിൽ ജനങ്ങളെയും നമ്മുടെ നാടിനെയും മുന്നിലെത്തിക്കാൻ സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് സർക്കാർ ആശുപത്രികളിൽ നല്ല മികച്ച ഡോക്ടർമാരെ നിയമിക്കുക എന്നുള്ളതാണ് കൂടാതെ സർക്കാർ ആശുപത്രികളിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും എത്തിക്കുക സർക്കാർ ആശുപത്രികൾ നല്ല വൃത്തിയോടെ സൂക്ഷിക്കുക ആവശ്യമായ ജോലിക്കാരെ അവിടെ നിയമിക്കുക ആവശ്യമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ എല്ലാം എത്തിച്ച് കൊടുക്കുക വൃത്തിയുള്ള ശുചി മുറി ഐ സി യു ഓപ്പറേഷൻ തിയേറ്ററുകൾ സ എല്ലാ ആവശ്യങ്ങളോടും കൂടിയ സ്കാനിംഗ് റൂമുകൾ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ സർക്കാർ ആശുപത്രികൾക്ക് നടത്തിക്കൊടുക്കുന്നത് വഴി നമ്മുടെ ആരോഗ്യ വിഭാഗത്തെ ഒരു വലയ രീതിയിൽ മെച്ചപ്പെടുത്താൻ സർക്കാരിന് കഴിയും അതുപോലെ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടീട്ട് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് പൊട്ടിപ്പൊളിഞ്ഞ ഇന്നത്തെ റോഡുകൾ മാറ്റി നല്ല രീതിയിലുള്ള റോഡുകൾ നിർമ്മിക്കുക നാലുവരിപ്പാതകളും മറ്റും നിർമ്മിക്കുന്നതോടു കൂടി ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിക്കും ഇന്ന് നമുക്ക് ചുറ്റും റോഡുകളിൽ നമ്മളേറ്റവും നേരിടുന്ന ഒരു പ്രശ്നമാണ് ആക്സിഡൻറ്റുകൾ അപകടങ്ങൾ ഇത്തരം അപകടങ്ങൾക്ക് കൂടുതലും കാരണമാകുന്നത് റോഡിലുള്ള കുഴികളും അപകട സാധ്യതകളും മറ്റുമാണ് ഇവയൊക്കെ നീക്കം ചെയ്ത് നല്ല ഒരു ഗതാഗത സൗകര്യം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെ റോഡിലുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനും നല്ല ഒരു ഗതാഗത സൗകര്യം അല്ലെങ്കിൽ ഗതാഗതത്തിനുള്ള ഒരു രീതി ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സർക്കാരിന് സാധിക്കും അതുപോലെ വിദ്യാഭ്യാസം രീതിയിൽ മാറ്റങ്ങളുണ്ടാക്കുന്നതിന് വേണ്ടീട്ട് സ്കൂളുകൾ മെച്ചപ്പെടുത്തുക സ്കൂളുകളിൽ ആവശ്യമുള്ള അധ്യാപകരെ നിയമിക്കുക സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആവശ്യമായ കംപ്യൂട്ടറുകളും മറ്റ് ഉപകരണങ്ങളും എത്തിച്ച് കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുക ഇതുപോലെ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് വീട് ഇല്ലാതെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഇന്നും ജീവിക്കുന്നുണ്ട് അത്തരം ആളുകൾക്ക് വീട് വെച്ചുകൊടുക്കാനുള്ള നടപടി എടുക്കുക കുടിവെള്ളം പോലും കിട്ടാത്ത അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ തെരുവുകളിലും നമുക്ക് അറിയാത്ത പല സ്ഥലങ്ങളിലും ഇന്നും ജീവിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഭക്ഷണം പോലും കിട്ടാതെ മരിക്കുന്നുണ്ട് ഇവർക്കൊക്കെ ആവശ്യമായ ഭക്ഷണവും മറ്റ് ആവശ്യമായ വസ്തുക്കളും എത്തിച്ച് കൊടുക്കുന്നതിലൂടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കൺ കണ്ടറിഞ്ഞ് നിറവേറ്റി കൊടുക്കാൻ സർക്കാരിന് സാധിക്കും ഇത്തരം രീതികളിലൂടെ നമ്മുടെ പട്ടണം ഗ്രാമം നഗരം എല്ലാത്തിനെയും മികച്ചതാക്കാൻ സർക്കാരിന് സാധിക്കും ഇവയൊക്കെയാണ് ഞങ്ങൾ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സേവനങ്ങൾ ഇതൊന്നും നമ്മൾ ചോദിച്ച് വാങ്ങേണ്ട ഒന്നല്ല മറിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സർക്കാർ നമുക്ക് വേണ്ടി കണ്ടറിഞ്ഞ് ചെയ്ത് തരേണ്ട കാര്യങ്ങളാണ്